കഴിഞ്ഞ ദിവസം വീട്ടിലെ കുറച്ച് പൊടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്ക് കണ്ടെയ്നർ കുറച്ച് കുറച്ച് പ്ലാസ്റ്റിക്ക് കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക്ക് കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിച്ചു പക്ഷേ അതിൻ്റെ നിലവാരം ഞാൻ ഉപയോഗിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ മോശമാണെന്ന് മനസിലായി ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ ഇട്ടു വയ്ക്കുന്നതിനു വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട് തന്നെയാണ് നോക്കി വാങ്ങിച്ചത് കടക്കാര് എനിക്ക് നല്ല പ്രോഡക്ടാണ് എന്ന് പറഞ്ഞ് സാമ്പിളൊക്കെ കാണിച്ചിട്ടാണ് എനിക്കത് ഓഫര് ചെയ്തത് അപ്പോള് ഞാനത് വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടു വന്നു പക്ഷേ രണ്ടു മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്കത് ഫീല് ചെയ്യാൻ തുടങ്ങി നമ്മള് ഈ പ്ലാസ്റ്റിക് ആ അടപ്പിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വീഴുന്നു ശരിക്ക് അടയുന്നില്ല പിന്നെ വേറൊരു പാത്രത്തിന് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളത് അമക്കി പിടിച്ചപ്പോഴേ അതിൻ്റെ വക്കങ്ങ് പൊട്ടിപ്പോയി അപ്പോള് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ നേരിട്ടത് പക്ഷേ അത് വളരെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്ക് ആ കണ്ടയ്നേഴ്സിന് ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നേരിട്ടത് കൊണ്ട് ഞാൻ ഇന്ന് നെഗറ്റിവായിട്ട് തന്നെ എനിക്കത് തോന്നി